മുടിയുടെ സംരക്ഷണത്തിനാണെങ്കിൽ മുടിക്ക് നാട്ടിൽ എണ്ണ എണ്ണ കാച്ചിവെയ്ക്കും അതായത് നാട്ടിൽ കാണുന്ന ഇതൊക്കെ ചെമ്പരത്തി കറിവേപ്പില പനിക്കൂർക്ക തുളസി പിന്നെ കറിവേപ്പില ഉള്ളി ഇങ്ങനെ കുറെ സാധനങ്ങളിട്ട് മൈലാഞ്ചി ഇതെല്ലാംകൂടെ അരച്ച് എണ്ണയുണ്ടാക്കി അത് തേക്കാറുണ്ട് പിന്നെ എണ്ണ ഞങ്ങളങ്ങനെയാണ് തേക്കാറുള്ളത് മുടിയൊക്കെ കറുക്കാനും നല്ലതുപോലെ വളരാനും പിന്നെ കറ്റാർവാഴ കറ്റാർവാഴ അതിന്റെകൂടെ ഉപയോഗിക്കാറുണ്ട് എണ്ണ എണ്ണയായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ മുടിക്ക് ഷാംപൂ ഒന്നും ഉപയോഗിക്കാതെ താളി ചെമ്പരത്തിയുടെ താളി ഉപയോഗിച്ച് ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ചെറുപ്പത്തിൽ ഇലയെല്ലാംകൂടെ ഇലയും പൂവും കൂടെയിട്ട് താളിയാക്കി അത് ആഴ്ചയിലൊരിക്കൽ തലയിൽ തേയ്ക്കുക നല്ല തണുപ്പും കിട്ടും പിന്നെ കറ്റാർവാഴയുണ്ട് കറ്റാർവാഴയുടെ ജെല്ലെടുത്ത്

അങ്ങനെ അതാണ് മുടിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് പിന്നെ എന്നതാണ് മുടിയുടെ സംരക്ഷണത്തിന് അതൊക്കെയാണ് ചെയ്യുന്നത് എണ്ണ കാച്ചി തേയ്ക്കുക ഷാംപൂ ഉപയോഗിക്കാതെ താളി ഉപയോഗിക്കുക അതൊക്കെത്തന്നെ പിന്നെ പായ്ക്ക് ഇടാറുണ്ട് ഈ തലയിൽ ഈ കറ്റാർവാഴയും ഇതെല്ലാം ഇതും മുരിങ്ങയില മുട്ടയുടെ വെള്ള ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പായ്ക്ക് പായ്ക്ക് പോലെ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകിക്കളയും തലയ്ക്ക് നല്ല തണുപ്പും കിട്ടും മുടി വളരുകയും ചെയ്യും സോഫ്റ്റായിട്ടിരിക്കുകയും ചെയ്യും പിന്നെ ചർമത്തിനുള്ളത് പച്ചമഞ്ഞൾ പച്ചമഞ്ഞൾ തേയ്ക്കാറുണ്ട് അരച്ച് തേയ്ക്കുക അങ്ങനെ അങ്ങനെ പച്ചമഞ്ഞൾ അരച്ച് തേയ്ച്ചാൽ നല്ല കളർ കാണും പിന്നെയുള്ളത് പായ്ക്ക് കടലമാവ് കടലമാവും പഞ്ചസാര കാപ്പിപ്പൊടി ഇതെല്ലാംകൂടെ മിക്സ് ചെയ്തൊരു പായ്ക്ക് ഫേസ് പായ്ക്ക് പോലെ ഉപയോഗിക്കാറുണ്ട് ഇങ്ങനെ തേയ്ച്ചിട്ട് തേയ്ച്ച് പിടിപ്പിച്ച് ഒരു ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും തേയ്ച്ചുകളയും പിന്നെ പിന്നെയുള്ളത് അരിപ്പൊടി ഇതുപോലെത്തന്നെ അരിപ്പൊടിയും കാപ്പിപ്പൊടി പിന്നെ പിന്നെയെന്താണ് ആ അതുംകൂടെ ഇട്ട് പഞ്ചസാരയും കൂടെയിട്ട് ഇങ്ങനെ മസാജൊക്കെ ചെയ്ത് അത് അരമണിക്കൂർ കഴിഞ്ഞ് ഇത് കളയാറുണ്ട് അതൊക്കെ ചർമത്തിന് ഉപയോഗിക്കുന്ന ഇതൊക്കെ പിന്നെ കസ്തൂരി മഞ്ഞളരച്ച് തേയ്ക്കാറുണ്ട് കസ്തൂരി മഞ്ഞൾ അരച്ച് തേയ്ക്കാറുണ്ട് അത് നല്ല കളർ കിട്ടും പിന്നെയുള്ളത് ഫേസ് ക്രീമിനോടെ ഈ ഫേഷ്യൽ പോലെ നമ്മൾ പാക്കൊക്കെ ഉപയോഗിക്കാറുള്ളത് പൊടിയൊക്കെവെച്ച് കടലമാവ് ഇതൊക്കെ വെച്ചൊക്കെ പിന്നെ കറ്റാർ വാഴയുടെ ജെല്ലും ഇതുംകൂടെയിട്ട് തന്നെ തേയ്ക്കുക തന്നെ നല്ല തണുപ്പ് നല്ല ഗ്ലോയും കിട്ടാൻവേണ്ടിയിട്ട് കറ്റാർവാഴയുടെ ജെല്ലെടുത്ത് ആഴ്ചയിലൊരിക്കൽ എടുത്ത് ജെല്ലെടുത്ത് വെച്ച് തേയ്ക്കാറുണ്ട് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും കറ്റാർവാഴയുടെ ജെല്ല് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അതൊക്കെ തന്നെ നമ്മുടെ ചർമ്മത്തിന് വേണ്ടിയിട്ടുള്ള നാട്ടുവൈദ്യങ്ങൾ പിന്നെയെന്താണ് അത്രയെയുള്ളൂ